നമ്മുടെയൊക്കെ ഫസ്റ്റ് ഇതെന്നു പറഞ്ഞാൽ നമ്മുടെ പാരൻസ് ആയിരിക്കും അപ്പോൾ നമ്മൾ ഒരു ബിസിനസ്സ് സ്റ്റാർട്ട് ചെയുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ഇപ്പോൾ സപ്പോർട്ടും മെൻ്റൽ സ്ട്രെങ്ത്തും കിട്ടാൻ സാധ്യത പാരൻസ് ആയിരിക്കും നമ്മൾ തുടക്കത്തിൽ നമ്മളുടെ ആ ഒരു ഇൻഷിയേറ്റീവ് നമ്മൾ എടുക്കുമ്പോൾ എത്രത്തോളം അവരിൽ നമ്മളുടെ ആ ഒരു പ്ലാനിൽ ഉള്ള കോൺഫിഡൻസ് കൊണ്ടായിരിക്കും നമ്മൾക്ക് അവര് നമുക്ക് ആ ഹെൽപ്പ് ചെയ്യുന്നത് പക്ഷെ എന്നാലും അവർ നമ്മളെക്കാളും കുറച്ചും കൂടി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആയതു കൊണ്ടു തന്നെ അവര് നമക്ക് കറക്റ്റ് മൊമെൻ്റിൽ നല്ല നല്ല ഡിസിഷൻസും ഈ പൈസ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളും പ്ലാൻ വർക്കൗട്ട് ചെയ്യേണ്ട കാര്യങ്ങളും ആൾക്കാരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട കാര്യങ്ങളും നമുക്ക് നമ്മൾ എനിക്ക് എൻ്റെ പേഴ്സണലി എൻ്റെ പാരൻസിൻ്റെ നിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പം അതെനിക്ക് ഒരു മൊമെൻ്റിൽ നല്ലോണം ഉപകാരപ്പെട്ടു ഈ ഫിനാൻഷ്യൽ ആ ഒരു അതൊക്കെ കൃത്യമായിട്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നും അത് വച്ചിട്ട് എങ്ങനെയാണ് ആ ഒരു നല്ല പ്ലാൻ വർക്കൗട്ട് ചെയ്തു എങ്ങനെയാണ് മുന്നോട്ട് പോകണ്ടതെന്നും നമുക്ക് പേഴ്സണലി നമുക്ക് നമ്മുടെ പാരൻസ് തന്നെയാണ് പറഞ്ഞു തരുന്നത്